ഒരു ബൈക്ക് യാത്രികൻ എന്ന നിലയിൽ ഞാൻ അഭിമുഖീകരിക്കാറുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ പലതരത്തിലുണ്ട് അതിനി റോഡിലൂടെയുള്ള വെല്ലുവിളികളാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വെല്ലുവിളികളാണെങ്കിലും പല വെല്ലുവിളികൾ സാമൂഹികപരമായും ശാരീരികമായും മാനസികപരമായും പല വെല്ലുവിളികൾ നേരിടുന്ന ഒരവസ്ഥയാണ് ഒരവസ്ഥയിലൂടെയാണു ഞാൻ ബൈക്ക് യാത്ര ചെയ്യാറ് എന്നാൽ അതൊക്കെ എങ്ങനെയാണു തരണം ചെയ്യാറുള്ളത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടിവരും എന്നുള്ളതു തീർത്തും സാധാരണയാണ് അതൊക്കെ നേരിടാനുള്ള വഴികള്കൂടി നാം കണ്ടെത്തുമ്പോഴാണു യഥാർത്ഥ ട്രാക്കിലൂടെ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ കഴിയുക അപ്പോള് ബൈക്ക് യാത്രികനെന്ന നിലയിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ പ്രധാനമായിട്ടും ഒന്ന് ഗതാഗത പ്രശ്നങ്ങളാണ് അഥവാ ഗതാഗത കുരുക്കുകൾ ഗതാഗത കുരുക്കുകൾ സ്വാഭാവികമായിട്ടും ബൈക്ക് യാത്രികര്ക്കു വളരെ പ്രയാസമുള്ളതാക്കും കാരണം ബൈക്കുകള് പോകാൻ വളരെ കുറഞ്ഞ സ്പേസുകൾ സ്ഥലങ്ങള് മതി എന്നിട്ടും ഗതാഗത കുരുക്കുകൾ ബൈക്ക് യാത്രികർക്കു വരെ വളരെ പെടാപ്പാട് പെടേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകാറ് മറ്റൊന്നു മോശം കാലാവസ്ഥയാണ് അഥവാ വളരെ ചൂടേറിയ കാലാവസ്ഥയാണെങ്കിലും അതല്ലെങ്കിൽ വർഷം മഴ വർഷിക്കുന്ന കാലാവസ്ഥയാണെങ്കിലും രണ്ടും ബൈക്ക് യാത്രികര്ക്കു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാരണം ഈ വളരെ ചൂടേറിയ വളരെ ഭീകരമായ ചൂടേറിയ സമയത്തു പൊള്ളുന്ന റോഡുകളിലൂടെ ഇങ്ങനെ ബൈക്ക് യാത്രകൾ പോകുമ്പോള് സ്വാഭാവികമായിട്ടും പൊള്ളലേല്ക്കുകയും കുഴഞ്ഞുവീഴുകയും ക്ഷീണമനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നതു വളരെ സ്വാഭാവികമാണ് എനിക്കും ആ പ്രശ്നങ്ങളൾ ഉണ്ടാവാറുണ്ട് എന്നാൽ മഴ പോലെയുള്ള അവസ്ഥകളിലാണെങ്കിലും മഴ കൊണ്ടുനനഞ്ഞ് കുളിക്കേണ്ട അവസ്ഥ പലപ്പോഴായിട്ട് എനിക്കു വന്നിട്ടുണ്ട് മറ്റൊരു വെല്ലുവിളി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് അഥവാ എപ്പോഴും റോഡുകള് സുരക്ഷിതമല്ലാതെ അറിയാതെ പെട്ടെന്നു തന്നെ കണ്ണിൽ പെടാതെ കുണ്ടും കുഴിയിലൊക്കെപ്പെട്ടു പോയി ചാടി അപകടങ്ങളിൽ എത്തുന്നതു വളരെ വ്യാപകമായി ഞാൻ കാണുന്നതാണ് ഇതു പ്രത്യേകിച്ചും ബൈക്കുകൾ ഓടിക്കുന്ന യാത്രകൾക്കാണ് സംഭവിക്കുന്നത് മറ്റൊന്ന് ഇടുങ്ങിയ റോഡുകൾ മണ്ണിടിച്ചിലുകള് വന്യ മൃഗങ്ങള് ഇതൊക്കെ ബൈക്ക് യാത്രികര്ക്കു പ്രത്യേകമായിട്ടും അല്ലാത്തവർക്കും പൊതുവായിട്ടും ഉണ്ടാകുന്ന വെല്ലുവിളികളാണ് ഇതൊക്കെ നേരിടേണ്ട മുൻകരുതലും അതോറിറ്റിയിൽ നിന്നും ഇതിൻ്റെ ഭാരവാഹികളിൽ നിന്നുമൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു